ഞാൻ വായിച്ചതില് ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന പുസ്തകം ഞാൻ വായിച്ചിരുന്നു നമ്മുടെ കുറച്ചു കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചു കൂടി പിന്നോട്ടു സഞ്ചരിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഓരോ ആചാരങ്ങളും ഒരു ഓരോ വൃത്തികെട്ട സമൂഹത്തിൽ നിന്നിരുന്ന ഒരുപാട് ആചാരങ്ങൾക്ക് കീഴിലായിരുന്നു മനുഷ്യൻ എന്ന് പറയാം ആ ഒരു പുസ്തകത്തിൽ ഇന്ദുലേഖയിൽ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തില് ഈ നായർ ജാതിയിൽ നായർ വിഭാഗത്തിൽ പെടുന്ന അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഓരോ ആചാരങ്ങളും മറ്റും ആണ് സ്ത്രീകൾക്ക് അന്ന് എത്ര വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ എത്ര ഈ നായർ സമൂഹത്തിൽപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഒരുപാട് ഉന്നത ഉന്നത വിഭാഗത്തിലുള്ള സമൂഹത്തിൽ തന്നെ ഉന്നത സ്ഥാനമുള്ളവരാണ് പക്ഷെ അവരിലെ സ്ത്രീ വിഭാഗം ആൾക്കാരെ എന്താ പറയുക വീടുകളിൽ തറവാടുകളിൽ അകപ്പെട്ടവരായി മാറുകയാണ് പിന്നീട് അങ്ങനെ ഒരു സമ്പ്രദായമാണ് നായർ സമുദായത്തിൽ ഉണ്ടായിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ സമ്പ്രദായം എന്നൊരു ഏർപ്പാട് വേറെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ആ ഒരു കുടുംബത്തിന് തന്നെ ഏറ്റവും മുതിർന്ന ആൾക്ക് മുതിർന്ന ആൾക്ക് വിവാഹം കഴിക്കാം പക്ഷേ ആളുടെ ഇളയ സഹോദരന്മാർക്ക് അപ്പൻ എന്ന് പറയും അവർക്കൊന്നും വിവാഹം കഴിക്കാനുള്ള ഒരു വിവാഹം കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പിന്നീടവർ പല സ്ത്രീകളുമായിട്ടും അവരുടെ വിഭാഗത്തിൽപ്പെട്ട പല സ്ത്രീകളുമായിട്ടും സംബന്ധം കൂടുകയും പിന്നെ അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും അച്ഛനുമായിട്ട് യാതൊരു ബന്ധം ഇല്ലാതാവുകയും ആ അമ്മയുമായിട്ടുള്ള കുടുംബ ബന്ധം മാത്രമാണ് ഉണ്ടാവുക പിന്നെ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസമായിക്കോട്ടെ പുറത്തോട്ട് പോകാൻ ആയിക്കോട്ടെ അങ്ങനെ യാതൊരു അവസരവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല